കുട്ടികൾ ഇന്നത്തെ കാലത്തു കളിക്കുന്ന പുതിയ കളികൾ ഫൂട് ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കും ബേസ് ബോൾ കളിക്കും ഹാൻഡ് ബോൾ കളിക്കും

സാറ്റ് കളിക്കും സ്റ്റോൺ പേപ്പർ സീസർ കളിക്കും പിന്നെ പോലീസ് തീഫ് കളിക്കും പിന്നെ സൈക്കളോടിച്ച് കളിക്കും മാത്രമല്ല മറ്റ് കളിപ്പാട്ടങ്ങൾ കൊണ്ട് അത് റെയ്സാക്കി കളിക്കും പിന്നെ എന്താ അങ്ങനെ കുറേ ഏറെ രസകരമായ പുതിയ കളികളും വന്നിട്ടുണ്ട് പിന്നെ പുതിയ ഓരോ കളിപ്പാട്ടങ്ങൾ കൊണ്ട് അതിൽ അതിലിരുന്ന് കൊണ്ട് റെയ്സ് റെയ്സ് പോലെ കളിക്കും